ഹാ ആരാണ് ആ ഞാൻ ടൂറിസ്റ്റാണ്

എനിക്കറിയേണ്ടത് അതായത് ഞാൻ ഫാമിലിയായിട്ട് ട്രിപ്പ് പോകാനുദ്ദേശിക്കുവാണ് അപ്പോൾ ഈ ഫാമിലിയായിട്ട് ട്രിപ്പ് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അവിടുന്നുള്ള അവിടുന്ന് കഴിക്കാനുള്ള ഫുഡൊക്കെ എങ്ങനെയാണ്

അതെയതെ അപ്പോൾ ഈ അപ്പോൾ ഈ ഫാമിലിയായിട്ട് വരുന്ന സമയത്ത് ഫാമിലിക്കും ഒരു സാഹചര്യത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ഉറപ്പല്ലേ അതെ അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യം എങ്ങാനും എങ്ങനെയാണ് അതെയതെ

ഞങ്ങൾക്ക് ഒരുമിച്ചിട്ടാണ് യാത്ര ചെയ്യേണ്ടത് ആ പിന്നെ ഞങ്ങൾക്കതിന് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടിങ്ങിനെ വാഹനമൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്തുതരുന്നതെങ്കിൽ എത്രയാണ് കാശിൻ്റെ കാര്യത്തിലെങ്ങനെയാണ് അതിൽ ഡിസ്കൗണ്ടൊക്കെ

ആ ശരി പിന്നീട് ഞങ്ങൾക്കിവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടോ അവിടെ ഈ രാത്രികാലങ്ങളിൽ അതെയതെ ശരി ശരി ഓക്കേ ഓക്കെ താങ്ക് യൂ